കളിക്കിടയിൽ പരിക്കേൽക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്നവർക്ക് നമ്മുടെ പ്രദേശത്ത് പ്രദേശത്തൊക്കെ പ്രഥമ സുശ്രൂഷാ കേന്ദ്രങ്ങൾ ലഭ്യമായിട്ടുണ്ട്

ധാരാളം ആശുപത്രികളും കുറച്ച് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ധാരാളം ആശുപത്രികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് കൂടുതലായും നമ്മൾ നല്ല മുറിവുകൾ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സുശ്രൂഷ കേന്ദ്രങ്ങളിലും പുനരധിവാസ സൗകര്യങ്ങൾ ഉള്ള ആശുപത്രികളിലും സഹായം തേടാറുള്ളൂ ചെറിയ മുറിവുകൾ നമ്മൾ അവഗണിക്കുകയും പച്ചമരുന്ന് പോലുള്ള ചെടികൾ വൈദ്യ വൈദികർ നൽകുന്ന ചെടികൾ ഉപയോഗിച്ച് മുറിവ് ഉണക്കുകയാണ് സാധാരണ ചെയ്യാറ്

എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും അനുസരിച്ച് ഓരോ പ്രഥമ സുശ്രൂഷ കേന്ദ്രങ്ങൾ അധവാ പ്രൈമറി ഹെൽത്ത് സെൻ്റെർസ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയും നമ്മുടെ ഇവിടെയും അങ്ങനെയുണ്ട് അപ്പോൾ അവിടെ പോയി മരുന്ന് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉപാധിയായി ഞങ്ങൾ കാണുന്നത്